ഹലോ ഫ്ലിപ്കാർട്ട് അല്ലേ ആ ഞാൻ വിളിച്ചത് ഞാൻ ഇന്നലെ ഒരു ഹാൻഡ് ബാഗ് ഓർഡർ ചെയ്തിരുന്നു ആ അത് ഇപ്പം ഓർഡർ പ്ലേസ് ആയി ഞാൻ ബ്രൗൺ കളറാണ് ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ വന്നത് ബ്ലാക്കാണ് അത് മാത്രമല്ല മൂന്നറയുള്ള ഒരു വലിയ ബാഗാണ് ഞാൻ ഓർഡർ ചെയ്തിരുന്നത് അതിപ്പം തീരെ ചെറുതാണ് വന്നിരിക്കുന്നത് ബാഗിൻ്റെ സിബും നല്ല ടൈറ്റ് ആണ് തുറക്കാൻ ആയാലും അടയ്ക്കാൻ ആയാലും നല്ല ബുദ്ധിമുട്ടുണ്ട് ആ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിരുന്നു പക്ഷെ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആ ഈ ബാഗിൽ തന്നെ ഒരുപാട് പേര് നല്ല റിവ്യൂസ് ഇട്ടിരുന്നു വളരെ നല്ല കമൻറ്റ്സ് ആണ് ഇട്ടിരുന്നത് അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇപ്പം എന്തുപറ്റി നിങ്ങളിപ്പം ഇങ്ങനെ കാണിക്കുമ്പം ഒരുപാട് പേർക്ക് ഇതിനകത്തുള്ളൊരു ട്രസ്റ്റ് ആണ് നഷ്ടപ്പെട്ട് പോകുന്നത് ഇല്ല ഇല്ല ഇല്ല മാറ്റി മാറ്റിയെടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഇത് റിട്ടേൺ അയക്കാം എനിക്ക് പൈസ തിരിച്ചു തന്നാൽ മതി ഇല്ല ഇല്ലാ ഇല്ല ബ്രൗൺ കളർ അല്ല ബാഗ് ഇനി വേണ്ട ഇല്ല ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാഗ് വാച്ച് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്കും കൂടി ഞാൻ ഒന്ന് ഓർഡർ ചെയ്തതെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് മാത്രമല്ല അതിൻ്റെ ഉളുമ്പ് ഇത്തിരി കീറിയിട്ടുമുണ്ട് ആ നിങ്ങൾ ഇപ്പം എങ്ങനെ ആയാൽ എങ്ങനെയാണ് ഓ ദാ ഇപ്പം എനിക്ക് കിട്ടിയതേയുള്ളൂ ഇപ്പം ഞാൻ നോക്കിയതേയുള്ളൂ അതിൻ്റെ ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സീക്വൻസ് ഒക്കെ ഡാമേജ്ട് ആണ് ഒരുമാതിരി തുരുമ്പെടുത്ത കണക്കാണ് ഇരിക്കുന്നത് ഓ സൈസ് വളരെ കുറഞ്ഞു പോയി ആ പിക്കില് കാണാൻ ഇത്രയും കുറവായിരുന്നില്ല അതുമാത്രമല്ല ഒരുപാട് പേര് ഇട്ടിരുന്നതും റിവ്യൂസിൽ ഫോട്ടോയൊക്കെ അറ്റാച്ച്ഡ് ആയിട്ട് ഇട്ടിരുന്നതും ഇങ്ങനെയൊന്നുമായിരുന്നില്ല പക്ഷേ ഇത് തീരെ ചെറുതായി പോയി ഇതല്ല ടോട്ടലി പറഞ്ഞാൽ ഈ ബാഗല്ല ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ആ ഇല്ല ഇല്ല എനിക്കത് ഞാൻ റിട്ടേൺ അയച്ചേക്കാം എനിക്ക് പൈസ തിരിച്ചു തന്നാൽ മതി കേട്ടോ ആ ശരി ശരി